ഞാൻ തയ്യൽ പഠിച്ചിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് പഠിച്ചിട്ടുമുണ്ട് മറ്റുള്ളവരെ പഠിപ്പിച്ചിട്ടുമുണ്ട് ആദ്യമായിട്ട് ചെറിയ പെറ്റിക്കോട്ടും ചെറിയ ഉടുപ്പും ഒക്കെ തയ്ച്ച് കൊച്ചിനെ ഇടിയിച്ചപ്പം എന്തെന്നില്ലാത്ത ഒരു ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാവരും കുറച്ച് തയ്യൽ പഠിച്ച് എടുക്കണം പഠിക്കണം എന്നാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം എന്തെങ്കിലുമൊരു പെട്ടന്നൊരു ചെറിയൊരു സാധനം തുന്നൽ വിട്ടു പോകുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് സ്വന്തമായിട്ട് തയ്ക്കുകയാണെങ്കിൽ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ പോവുകയും വേണ്ട ആ പിന്നെ ഈ എന്തെങ്കിലുമൊക്കെ കുറച്ച് സമയം നമുക്ക് ചുമ്മാ കിട്ടുമ്പോഴൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പിള്ളേർക്കായാലും ഉടുപ്പോ തയ്ക്കാൻ നമ്മൾക്കായാലും ചെറിയ എന്തെങ്കിലും സാധനങ്ങൾ പാവാട നൈറ്റി ബ്ലൗസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തയ്ക്കാൻ തയ്ച്ച് സ്വന്തമായിട്ടിടുമ്പോൾ അതിൻ്റേതായൊരു ആത്മസംതൃപ്തിയുണ്ടല്ലോ പിന്നെ അതുകൊണ്ടൊരു ചെറിയ വരുമാനവും കിട്ടും മറ്റുള്ളവർക്ക് നമ്മളെ ഇത് പഠിപ്പിച്ച് കൊടുക്കുമ്പോൾ ആ നം മറ്റ് അവർക്കും നമ്മളെക്കൊണ്ടൊരു ഉപകാരം കിട്ടുകയല്ലേ അവർക്കും അത് അവരുടെ ആവശ്യങ്ങൾക്കു വേണ്ടി ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യാം പിന്നെ ഞാനാദ്യമായിട്ട് പഠിക്കാൻ ചെല്ലുമ്പം ഒന്നുമറിയത്തില്ല എന്താ ചെയ്യുന്നത് സൂചിക്ക് കോർക്കാൻ പോലും അറിയത്തില്ലാത്ത ഒരവസ്ഥയായിരുന്നു അത് കഴിഞ്ഞപ്പോൾ എല്ലാം പഠിച്ചെല്ലാം കഴിഞ്ഞപ്പം അത് ചെയ്യാനറിയാം പിന്നെ മറ്റുള്ളവരെ പഠിപ്പിക്കുമ്പോഴായാലും നമുക്കൊരു ഭയങ്കര സന്തോഷം ഒരു കിട്ടും ഓരോ സാധനങ്ങൾ തയ്ച്ച് അത് കൊടുത്ത് മറ്റുള്ളവരതിട്ടു കാണുമ്പോഴും നമുക്കൊരു സന്തോഷമാണ് നമുക്കൊരു വരുമാനം ഇതിലൊക്കെ ഉപരിയായിട്ട് നമുക്ക് സ്ത്രീകൾക്കൊരു വരുമാനമാർഗ്ഗം കൂടിയാണ് മറ്റുള്ള എപ്പോഴും എപ്പോഴും വീട്ടിലുള്ള ആണുങ്ങളെ ആശ്രയിക്കാതെ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ പണം കണ്ടെത്താൻ നമുക്ക് കഴിയും അതുപോലെ നമ്മുടെ അയൽപക്കത്തുള്ള കുറച്ചുപേരെ പഠിപ്പിക്കുകയാണെങ്കിൽ അവർക്കും നമ്മളെക്കൊണ്ട് ഒരു ഉപകാരമാവുകയും ചെയ്യും എല്ലാവരും കുറച്ച് തയ്യൽ പഠിക്കുകയും അത്യാവശ്യം തയ്യൽ പഠിക്കണം എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത് ഒരു സ്വയം തൊഴിൽ എല്ലാ സ്ത്രീകൾക്കും വേണം ആണുങ്ങളും ഇത് കുറച്ച് പഠിക്കുകയാണെങ്കിൽ അവർക്കുമൊരു ഉപജീവനമാർഗ്ഗമാണ് ഒത്തിരി നേരത്തെ ബുദ്ധിമുട്ടുമെന്നല്ലേയുള്ളൂ ഒരു തുണി വെട്ടി തയ്ച്ചു നമ്മൾ ചുമ്മാ വേസ്റ്റാക്കി കളയുന്ന ആ സമയത്ത് ചെയ്യാവുന്നൊരു ജോലിയാണല്ലോ നമുക്കൊരു വരുമാനവുമാകും എല്ലാ ജനങ്ങളും ഇത് പഠിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം